ഹലോ ഹലോ ഇത് ഞാൻ പറയുന്ന ആളാണ് ഹോട്ടലിൽ ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളത് പ്രധാനമായിട്ടും നമുക്ക് അപ്പവും ഇടിയപ്പവുമൊക്കെ ഉണ്ടോ നൂലു പൊറോട്ടയാണ് അല്ലെ

ഈ അതിന് നൂലു പൊറോട്ടയ്ക്ക് എന്നാ റേറ്റ് എത്രയാവും ഒരെണ്ണത്തിന് ഇരുപതു രൂപ അല്ലേ

അപ്പം വേറെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞത് അത് എന്നതായിരുന്നു അപ്പമോ ഇടിയപ്പമോ അങ്ങനെ അ അപ്പം ഇതിനെല്ലാം വെജിറ്റബിൾ കറികളും കാണുമായിരിക്കും അല്ലെ ഹലോ അ വെജിറ്റബിള് കറികൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ അ അ അ അ അപ്പം ഒന്ന് അ ആതെ ആയിരുന്നു അ അ

അ അ പാർസൽ ആയിരുന്നു വേണം ഒരു അഞ്ച് പാർസൽ എടുത്തോ അ അ ബീഫ് കറി എടുത്തോ ബീഫ് അ മതി മതി ഇത് സ്ഥലം പണിക്കൻകുടി എന്ന് പറയും ഓർഡറ് എത്തിക്കാൻ പറ്റുമോ അതെയോ അപ്പം എത്ര രൂപായാവും അ അ തൊള്ളായിരത്തി അമ്പത് അല്ലെ അ എന്നാ ഓക്കെ എന്നാ എന്നാ ഞങ്ങൾ വരാം അ അ വേറെ വേറെ വേണ്ട

അ അ വേറെ ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകൾ ഉണ്ടോ അ അ ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളത് അ എന്നാ അതിൻ്റെ കൂടെ ഒരു കിലോ ആപ്പിൾ ഒരു കിലോ അ പണിക്കൻകുടിയാണ് കൊടുത്തു നമ്മുടെ അ പള്ളിയുടെ അടുത്ത് അ അ അ ഓക്കെ